ഹെലോ എക്സ് റെസ്റ്റോരൻറ്റല്ലേ അവിടെ ഷവായി മന്തിയുണ്ടോ ഷവായി മന്തി ഉണ്ടെങ്കില് എന്താ റേറ്റ് വരുന്നത് അതിൻ്റെ അളവുകൾ എന്തോരം ഉണ്ടാവും ചെസ്റ്റ് പീസാണോ അതോ കാലിൻ്റെ പീസായിരിക്കോ ഉണ്ടാവുക അതുപോലെ മസാലകൾ എങ്ങനെ പെരി പെരി മസാലയാണോ അതോ പെപ്പർ മസാലയാണോ അതോ നോർമൽ മസാലയാണോ എന്താണ് അതിനകത്ത് ചേർക്കുന്നത് ഈ റെസ്റ്റോറൻറ്റിൽ എങ്ങനെയാണ് ഹോം ഡെലിവറി ഉണ്ടോ അതോ നമ്മൾ വന്ന് പിക്കപ്പ് ചെയ്യണോ നമുക്കൊരു പരിപാടിക്ക് വേണ്ടിയാണ് അധികം വേണം സാധനം അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ അതിൻ്റെ റേറ്റ് അതിന് എന്തൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാവോ